എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളി എഴുത്തുകാരനെന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് വൈക്കം മുഹമ്മദ് ബഷിറിൻ്റെ കഥ എന്ന് വെച്ചാൽ വളരെ രസകരമായ രസകരമായ കൃതികളും നോവലുകളും അങ്ങനത്തെയൊക്കെ ആണ് പിന്നെ ഇവിടുത്തെ കേരളത്തിൽ തന്നെ ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് പഠിക്കാനായിട്ട് തന്നെ ഉണ്ട് പത്തിലും എല്ലാ എല്ലാ ക്ലാസ്സിലുള്ളവർക്കും അത് പഠിക്കാൻ തന്നെ ഉണ്ട് പിന്നെ വളരെ വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എൻ്റെ ഉപ്പയൊരാ ആ ആന ഉണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് അങ്ങനെ വളരെ വളരെ വളരെ രസകരമായ കൃതികൾ അദ്ദേഹത്തിനുണ്ട് എല്ലാ കൃതികളും തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെ മിക്ക കൃതികളിലും കാണാം ഈ മൃഗങ്ങളെ സ്വന്തം ബന്ധുക്കളെ പോലെയാ കാണുന്നെ കാണുന്നതായിട്ടുള്ള കൃതികൾ പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും വളരെ തമാശ നിറഞ്ഞതും വളരെ രസകരമായിട്ടുള്ള അത് അത് അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ കൃതികൾ വായിക്കാൻ ഇടയാവുകയും എല്ലാ എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടെന്ന് വെച്ചാൽ ബഷിറിൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ആടിനെ ആസ്പദമാക്കി എഴുതിയ ഒരു കൃതിയാണത് പിന്നെ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു അതിൽ തന്നെ മൃഗ ആ ആനയാണ് കഥാപാത്രമായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഒട്ടുമിക്ക കൃതികളും അദ്ദേഹത്തിനുണ്ട് പല ആ അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വളരെ രസകരമായ കൃതികളാണ് അദ്ദേഹത്തിൻറ്റേത് അത് വായിക്കുമ്പോൾത്തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുകയും കുളിർമ തോന്നുകയും ചെയ്യാറുണ്ട് അതേപോലെത്തന്നെ ഏറ്റവും ഏറ്റവും ഇൻട്രെസ്റ്റിങ്ങ് ആയിട്ടുള്ള പല നോവലുകളും കഥക കവിതകളും അദ്ദേഹത്തിന് ഉണ്ട് പിന്നെ